ആ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എങ്ങനെയാണ് സംസ്ഥാനത്തുടനീളം വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നത് പ്രകൃതി സൗന്ദര്യത്തിന് സവിശേഷത പ്രസിദ്ധമായുള്ള ഏതെങ്കിലും പ്രത്യേക പ്രദേശങ്ങളുണ്ടോ ഈ ഭൂപ്രകൃതി എങ്ങനെയാണ് സംസ്ഥാനത്ത് ഉടനീളം വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് അത് എന്നു പറഞ്ഞാൽ ഒരു ജിയോളജിസ്റ്റിനെ അത് ആദ്യം ചോദിക്കേണ്ടത് ഇത് സാധാരണ സാധാരണക്കാർക്ക് സാധാരണക്കാരോട് ചോദിച്ചാൽ അവർക്ക് ഒന്നും മനസ്സിലാകില്ല ഇത് എന്താ ഇപ്പം ചോദിക്കുന്നത് കാരണം ഭൂപ്രകൃതി സീ കേരളത്തില് മാത്രമല്ല ലോകമാകെ ആകമാനം ഇത് വ്യത്യാസപ്പെട്ടിട്ടാണ് കിടക്കുന്നുള്ളത് അതിപ്പോൾ കുറച്ചൊന്നു ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും സാധാരണക്കാരെല്ലാം ഇതേ പോലെയുള്ള മറുപടിയേ പറയൂ കാരണം എന്ന് പറഞ്ഞാലേ ഒന്നും ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല എന്നാണ് ഈ മഹാന്മാര് പറയുന്നത് കാരണം എല്ലാം വ്യത്യസ്തമാണ് ഒന്നും ഒന്നിനോട് സാമ്യം ഉണ്ടാകില്ല സാമ്യമുണ്ടെങ്കിൽ തന്നെ അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം കാണും കാരണം ഈ നമ്മുടെ തിരുവനന്തപുരം മുതല് ഈ ഇങ്ങേ ഉള്ള കാസർഗോഡ് വരെയുള്ളേ സ്ഥലം എന്ന് പറയുന്നത് പുഴകളും മലകളും വയലുകളും പാടങ്ങളും കടലും ഇങ്ങനെ എല്ലാം ഉള്ള ഒരു സ്ഥലമാന്ന് കാരണം ഏറ്റവും കൂടുതല് പുഴ ഉള്ളതും ഏറ്റവും കൂടുതല് കടല് കിട്ടുന്നതും അതേപോലെ കുന്ന് ഉള്ളത് ഫുൾ മഞ്ഞു വീഴ്ചയുള്ളത് ഹൈ ഹൈ റേഞ്ച് എന്നു പറയുന്ന ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ മലയോര പ്രദേശങ്ങള് ഇങ്ങനെ ഒന്നിനോടൊന്ന് വ്യത്യസ്തായിട്ട് മനോഹരമായിട്ടുള്ള ഒര് സ്ഥലങ്ങളാണ് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇത് എന്ന് പറയുന്നത് ഈ മലയോര പ്രദേശവും തീരദേശ പ്രദേശവും അതേപോലെ പുഴകളുടെ ഒരു നാടും ഇങ്ങനെ ഒന്നിനോടൊന്ന് വ്യത്യസ്തമാണ് കിടക്കുന്നുള്ളത് പ്രകൃതി സൗന്ദര്യം എന്ന് പറയുന്നത് ഓരോ വീക്ഷകൻറ്റേയും അല്ലെങ്കിൽ ഓരോ എന്താന്ന് അതിൻ്റെ യഥാർത്ഥ വാക്ക് ശരിക്കും കിട്ടുന്നില്ല ഓരോ എന്താണ് പ്രേക്ഷകൻറ്റേയും അടുത്താന്ന് സൗന്ദര്യം എന്നുള്ളത് അതിപ്പം പ്രകൃതി എന്നല്ല ഏത് സൗന്ദര്യം എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് സൗന്ദര്യ ആസ്വാദകൻ്റെയാന്ന് സൗന്ദര്യം കാണുന്നുള്ളത് ഇപ്പം പ്രകൃതി എന്ന് പറയുമ്പം ചിലവർക്ക് കടലായിരിക്കും പ്രകൃതിയില് ഇഷ്ടപ്പെട്ടത് ചിലർക്ക് ഈ കുന്നും മലകളും മലയോര പ്രദേശങ്ങളും ആയിരിക്കും ചില ആൾക്ക് തണുപ്പായിരിക്കും ചില ആൾക്ക് ചൂടായിരിക്കും അത് അവരവരുടെ ആസ്വാദനത്തിനനുസരിച്ചിട്ട് ഉണ്ടാകും ആസ്വാദകൻ്റെയാന്ന് ഈ സൗന്ദര്യം കണ്ടെത്തുക ചിലർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് ഹിസ്റ്ററി ആയിട്ടും ജിയോളജി ആയിട്ടും അല്ല അഗ്രികൾച്ചർ ആയിട്ടും അല്ല ഹിൽസ്റ്റേഷൻ ആയിട്ടും റിവർ ആയിട്ടും വാട്ടർ ഫോൾസ് ആയിട്ടും ഇങ്ങനെ ഒരുപാട് ആൾക്കാര് ഏത് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ കൊച്ചു കേരളമെന്നു പറയുന്നത് കേരളം എന്നല്ല ഇന്ത്യ മൊത്തം അങ്ങനെ തന്നെയാണ് കാരണം പല ഭാഷകള് പല ഭാഷകള് സംസാരിക്കുന്ന ആൾക്കാര് പല മതക്കാര് പല ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആൾക്കാര് പല ട്രാവലിങ് ചെയ്യുന്ന ആൾക്കാര് പല പ്രകൃതി ആസ്വദിക്കുന്നവര് ഇങ്ങനെ ആയിരക്കണക്കിന് സ്വഭാവമുള്ളവർക്കും അല്ലെങ്കിൽ എന്താന്ന് ഇത് ആസ്വദിക്കാൻ പറ്റും അങ്ങനെ ഉള്ള ഒരു നാടാന്ന് കേരളം പിന്നെ കേ പ്രകൃതിനെപ്പറ്റി പറയുന്നതെങ്കിൽ കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തം അങ്ങനെ തന്നെയാണ് നമ്മളുടെ തൊട്ട് അപ്പുറത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട് പോയാലും ഇതു തന്നെയാണ് എങ്ങനെ ഉള്ള അൾക്കാർക്കും ആസ്വദിക്കാൻ പറ്റും കാരണം പ്രകൃതിയാണ് പ്രകൃതി കേരളത്തിന് മാത്രമുള്ളതല്ല ലോകത്തിന് മൊത്തമായിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിപ്പം ഈ പാലസ് അല്ല പഴയ കൊട്ടാരങ്ങള് അത് കാണാൻ പോകുന്നത് ആൾക്കാരാണ് അവർക്ക് അതേ ഇഷ്ടപെടൂ ആ അവരെ കൊണ്ടു പോയിട്ട് ഹിൽസ്റ്റേഷനോ അല്ല സൂ വോ അതുമല്ല റിവറോ കാണിച്ചാൽ അവർക്ക് അത് മൈൻഡില് ഓക്കെ കാണാം എന്നല്ലാതെ അത് ആസ്വദിക്കാൻ പറ്റണമെന്നില്ല പിന്നെ ഇതില് പറയുന്ന പോലെ കുന്നുകൾ കുന്നുകൾ എന്നു പറയുന്നത് എല്ലാ നമ്മുടെ എല്ലാ നാട്ടിലും ഉണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളും കുന്നുകൾ ഇല്ലാത്തതില്ല വനങ്ങളുമുണ്ട് വെള്ളച്ചാട്ടങ്ങളുമുണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള പിന്നെ ഇതേപോലെ കൊല്ലം ട്രീ ഹൗസ് എന്ന് എല്ലാം പറഞ്ഞ് നെല്ലിയാമ്പതി ഇതെല്ലാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് അതായത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആണിത് ഇത് കുന്നുകൾ എന്ന് പറയുന്നത് ചെറിയ ഒരു സംഭവമാണ് അതായത് മലയോര പ്രദേശം എന്ന് പറയുന്നതും കുന്നുകള് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് കുന്നുകള് കേരളത്തിലെ എല്ലാ കേരളത്തില് എന്നല്ല എല്ലാ സ്ഥലത്തും കാണുന്നത് ഈ കുന്നുകള് പക്ഷെ മലയോര പ്രദേശം അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കേരളത്തില് കൂടുതലാണെന്ന് കാരണം എല്ലാ ജില്ലകളിലും രസമായിട്ട് പോകുന്നുണ്ട് മലയോരം എന്നു പറയുമ്പോൾ നമുക്കാദ്യം കിട്ടുന്നത് കൊല്ലമാണ് വയനാടാണ് ഇതെല്ലാം മലയോരമാണ് കാസർഗോഡുണ്ട് കണ്ണൂരുണ്ട് പിന്നെ വായ എല്ലാ സ്ഥലത്തും ഉണ്ട് മലയോരം മലയോര ഹൈവേകളുണ്ട് ഇപ്പം മലയോരം പ്രദേശത്ത് ഒരുപാട് ആൾക്കാരും താമസക്കാരും എല്ലാവരും ഉണ്ട് വനങ്ങള് വനങ്ങളും അതേപോലെ ഫോറസ്റ്റ് വകുപ്പ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിന് ഒരു വകുപ്പ് തന്നെയുണ്ട് വനങ്ങളില്ലാത്ത സ്ഥലമില്ല പക്ഷേ വനങ്ങള് എന്ന് ആദ്യം പറയുമ്പോൾ നമ്മള് പോകുന്നത് ഏതാണ് വയനാട് ഓ എന്നാ വനമാണ് അങ്ങനെ ഒരുപാട് ഓരോന്നൊക്കെ പറയുന്നെങ്കിൽ കടല് പുഴകള് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാര് പറയും ആലപ്പുഴ ആലപ്പുഴ എന്ന് വെള്ളച്ചാട്ടമെന്ന് പറയുമ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇങ്ങനെ ഒന്നിനൊന്ന് ഫേമസായിട്ട് അറിയപ്പെടുന്നതും ആസ്വദിക്കാൻ പറ്റുന്നതുമായ സ്ഥലങ്ങളാണ് കേരളത്തില് ഏറ്റവും കൂടുതല് ഉള്ളത് പക്ഷേ അതെപ്പഴും ആസ്വാദകൻ്റെ മനസ്സുപോലെ ഉണ്ടാകും കാരണം എല്ലാം ആസ്വദിക്കാൻ പറ്റണമെന്നില്ല ഒന്നിനോടൊന്ന് ഇതാക്കുമ്പഴാണ് ആസ്വാദനം വരുന്നത് അത് ആസ്വദിക്കുന്ന ആളുടെ മനോഭാവം പോലെയാണ് ഉണ്ടാവുക അതിപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാ സ്ഥലത്തും എത്തിപ്പെടണമെന്നില്ല പക്ഷേ പറ്റുന്നെങ്കിൽ എത്തിപ്പെടുന്നതും ഒരു അനുഗ്രഹമാണ് ഒരു നിമിത്തമാണ് അപ്പം അങ്ങനെയുള്ള കുറെ സംഭവം ഉണ്ട്